ഇത് എങ്ങോട്ട് പോവുന്ന ബസ് ആണ് അപ്പം ഇത് പെരിന്തൽമണ്ണയ്ക്കല്ലേ അതെ ഞാൻ മാറിക്കയറി ഇനി ഇപ്പം എന്താണ് ചെയ്യുക നേർ മീൻസ് നേരം വൈകിനി എത്തുളളൂ എനിക്ക് നേരത്തെ എത്തണ്ടീനു കോളജിലേക്ക് ഓൾറെഡി നേരം മ് അപ്പം ഈ വ മീൻസ് ബസ് കി നേരം കിട്ടിയപ്പം ഇയാൾ ശരിക്കുമുള്ള സ്ഥലത്തല്ലേ നിർത്തിയത് അതിന് വണ്ടി വന്നപ്പം ശ്രദ്ധിച്ചില്ലേ

ഇതിപ്പോൾ മലപ്പുറത്തുനിന്നങ്ങനെ കയറുന്നതല്ലേ ഒന്നും കൂടി നല്ലതാവുക അപ്പം ഇനിയും തിരിച്ച് പോവേണ്ടി വരില്ലേ അപ്പം ഇനിയിപ്പം അ അവിടേക്ക് പോവണമെന്നുണ്ടെങ്കിൽ മലപ്പുറത്തേക്ക് എത്രയാണ് മലപ്പുറത്തുനിന്ന് പെരിന്തൽമണ്ണയ്ക്ക് എത്ര വരുന്നുണ്ടാവും ആവോ ഇനി ഇപ്പം എന്താണ് ചേ അപ്പം ഇനി പിന്നെ ഇത് ഞാൻ ഇപ്പം എവിടുന്നാണ് ഇറങ്ങേണ്ടി ശരിക്കിനും പറയുവാണെന്നുണ്ടെങ്കിൽ